മലയാളികൾക്ക് ഭാഷ ഒരു പ്രശ്നമേ അല്ല ഏത് പിന്നെ ഭാഷക്കാരോടും സംസാരിച്ചു നിൽക്കാൻ മലയാളികൾക്ക് കഴിയും അവർ ഏത് രാജ്യത്ത് പോയാലും അവർ ഏത് ഭാഷയോടും പൊരുത്തപ്പെട്ട് അവർ സംസാരിക്കാൻ അവരെക്കൊണ്ട് കഴിയും ഇപ്പോൾ തന്നെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത് മലയാളികളാണ് അവർ ഏത് ഭാഷയും അവർ അവർ ഭാഷയുമായിട്ട് സംസാരിക്കുകയും ചെയ്യും പ പക്ഷേ മറ്റുള്ള ഭാഷക്കാർക്ക് നമ്മുടെ മലയാളം പറയാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് മലയാളികൾ എവിടെപ്പോയാലും പിടിച്ചുനിൽക്കുക ഏത് രാജ്യത്ത് പോയാലും അവിടെ ഒരു മലയാളിയെങ്കിലും കാണാതിരിക്കില്ല